ഒരുപാട് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ പ്രദേശത്തെ വിനോദ സഞ്ചാരത്തെ കുറിച്ച് അവര്ക്ക് പറഞ്ഞ് കൊടുക്കാനും ഒരു ഗൈഡ് ആയി അവരുടെ കൂടെ നടക്കാനും ഒക്കെ പറ്റുമ്പോൾ ഒരുപാട് പേര്ക്ക് തൊഴിലവസരങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവരുടെ വസ്ത്രങ്ങൾ അലക്കിയും എല്ലാം കൂടി അവരുടെ കൂടെ തന്നെ കൂടുമ്പോൾ നമ്മള്ക്കും ഒരുപാട് ലാഭങ്ങളാണ് ഉണ്ടാകുന്നത് നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭക്ഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക അവരുടെ സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറയുക നമ്മുടെ നാടിന്റെ വൃത്തിയും വെടിപ്പും കാനന ഭംഗിയും അതൊക്കെ നമ്മളോട് പറയുക അവരുടെ അനുഭവങ്ങൾ പറയുക

അവരുമായിട്ട് നല്ലൊരു ബന്ധങ്ങള് ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രദേശവാസികള്ക്ക് ഒരുപാട് തൊഴിലവസരവങ്ങൾ ഇതുകാരണം ഉണ്ടാകുന്നുണ്ട് കടൽ കാണിച്ചു കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ അവരുടെ കൂടെ കൂടുമ്പോൾ അവര്ക്ക് നല്ല പൈസയൊക്കെ കിട്ടും നല്ല ജീവിതം മെച്ചപ്പെടുത്താന് പറ്റും